ഇവിടെ ഒരു നാട്ടിൻപ്രദേശമായതുകൊണ്ട് ഗ്രാമപ്രദേശമായതുകൊണ്ട് ഒരു ഓൺലൈൻ കൂട്ടായ്മ എന്നു പറയാനുള്ള സൗകര്യങ്ങളോ അങ്ങനെയുള്ളൊരു രീതിയോ ഈ നാട്ടിൻ പ്രദേശത്ത് ഇല്ല അതിനു താത്പര്യമുള്ളവരും വളരെ കുറവു തന്നെയായിരിക്കും അതുകൊണ്ടാണ് ഈ ഓൺലൈൻ കൂട്ടായ്മയെക്കുറിച്ച് ആൾക്കാർ ചിന്തിക്കാതിരിക്കുന്നത് ഒന്ന് അല്ലാതെ കണ്ട് നമുക്ക് സാധാരണ അറിവു ലഭിക്കുന്നതിനും നമ്മുടെ പ്രാദേശിക വർത്തകളൊക്കെ അറിയുന്നതിനായിട്ടു പത്രങ്ങൾ ദിനപത്രങ്ങൾ ടെലിവിഷൻ റേഡിയോ ഈവക മാധ്യമങ്ങൾക്കൂടി കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതു കൊണ്ട് ഇവിടെ ഒരു ഓൺലൈൻ കൂട്ടായ്മ സാധാരണ നമ്മൾ ഗ്രാമ പ്രദേശങ്ങളിൽ ലഭ്യമല്ല അതിനുള്ള സജ്ജീകരണങ്ങളൊന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുമില്ല അതുകൊണ്ടാണ് ഓൺലൈൻ കൂട്ടായ്മ ഇവിടെ നടപ്പാക്കാതിരിക്കുന്നത് അ അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് വാർത്തകൾ അറിയുന്നതിനും മറ്റും ഞാൻ പറഞ്ഞതു പോലെ ടെലിവിഷനും ടി വിയും ദിനപത്രങ്ങളും എല്ലാം ഉപകാരപ്രദമാണ് സൗകര്യ പ്രദമായി ലഭ്യമാണ് അതുകൊണ്ട്

ഇല്ല എന്നു തന്നെയാണ് എനിക്ക് പറയാനുള്ളത്